ഞാൻ ഒരു ഹെഡ് സെറ്റ് വാങ്ങിച്ചു പക്ഷേ നല്ല നല്ല ട്യൂണും നല്ല പരിസരമൊക്കെ നല്ലത് നല്ലതായിരുന്നു എൻ്റെ മോൻ ഒന്ന് വാങ്ങിച്ചു ഇനിയും എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് നല്ല ഒരു സംഭവം ആണ് അത് പരിസരമൊന്നും പുറത്ത് നിന്ന് കേൾക്കാൻ നല്ല ഒരു ലാംഗ്വേജാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ മോൻ ഒന്ന് വാങ്ങിച്ചു എൻ്റെ എളേ മോൻ ഒന്ന് വാങ്ങിച്ചു എൻ്റെ ഹസ്ബൻഡിന് ഇനി ഒന്ന് വാങ്ങിക്കണം നല്ല ഇഷ്ടപെട്ടു നല്ല സൂപ്പർ ആയിരുന്നു അത് കേട്ടോ നല്ല നല്ല സൗണ്ടൊക്കെ നല്ല നൈസ് ആയിരുന്നു നല്ലതായിരുന്നു എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു പാട്ടൊക്കെ പാട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് പാട്ട് കേൾക്കാമായിരുന്നു കേട്ടോ അല്ല ഇനിയും അത് വാങ്ങിക്കണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു അത് വാങ്ങിക്കാൻ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കേ